അങ്ങനെ നമ്മുടെ അടുത്തുതന്നെ ഉണ്ട് ഒരു പി എസ് എസ് സി ഉണ്ട് അപ്പം അവിടെ പറഞ്ഞെങ്കിൽ നമുക്ക് അങ്ങനെള്ള എല്ലാം തരും പിന്നെയവർ പറഞ്ഞ് തരും പിന്നെ ഇവിടെ അടുത്തുതന്നെ രാജഗിരിയെന്ന് പറഞ്ഞിട്ടൊരു ആയുർവ്വേദ ഡോക്ടർ ഉണ്ട് അവരുടെ അടുത്ത് പോകും ചെറിയ അസുഖത്തിനെല്ലാം അത് മതിയാകുന്നുണ്ട് പിന്ന വിധു ഉണ്ട് വിധു എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഉണ്ട് നമ്മള അടുത്ത് അതെല്ലാം അടുത്ത് തന്നെ നമ്മള ഈ റസിഡൻറ്റ് നമ്മള ഈ ഒര് ഏരിയ റസിഡൻറ്റ് ഇതിൽ പെട്ടതാണ് അപ്പോൾ റസിഡൻറ്റ് ഏരിയയിലാണ് ഈ രണ്ട് ഡോക്ടർമാറും ഉള്ളത് പിന്നെ പി എച്ച് സി ഉള്ളത് റസിഡൻറ്റ് ഏരിയയിലാണ് അതുകൂടാതെ നമുക്ക് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് ശോഭ ഡോക്ടർ അവരും നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യും പിന്നെ അതു കഴിഞ്ഞാൽ പിന്നെ ദൂരെ ദൂരം വലിയ അസുഖത്തിനെല്ലാം ദൂരെ എൻ്റെ ഭർത്താവിന് സുഖമില്ലാതെ അറ്റാക്ക് ആയിട്ട് മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിലാണ് ആഞ്ചിയോഗ്രാം ചെയ്തത് അതെപോലെ തന്നെ അത് രണ്ടാമതും അത് വന്ന് അതുപോലെ വന്നിട്ടാകുമ്പോൾ കാസർഗോഡ് പൊയ്തു അപ്പോൾ എല്ലാം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിനി പിന്നെ പോവാൻ പറ്റാതെ മകൻ ഇല്ല ഇവിടെ മകൻ ദൂരെയാണ് പിന്നെ ഇത് നമുക്ക് പിന്നെ പെട്ടെന്ന് വാഹനമെല്ലാം പിടിച്ചിട്ട് എത്താൻ പാടാണ് അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടീനി പിന്നെ ഇത് നമുക്കും അങ്ങനെ അസുഖം വെലുങ്ങനേന്നങ്ങും വന്നെങ്കിൽ നമ്മൾ രണ്ട് പേരെ ഇല്ലും പിന്നെ മരുമോളുണ്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് എന്നെങ്കിലും പിന്നെയത്ര കഷ്ടപ്പാടില്ല എങ്ങനെങ്കിലും എത്തിപ്പെട്ടു പെടാം പിന്ന ദൂരം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കാസർഗോഡാന്ന് കുറച്ച് അടുത്ത് പിന്ന പരിയാരം പോകാം നമ്മൾ ഒരു പിന്നെ ഭർത്താവിൻ്റെ അനിയന് പരിയാരം പോകേണ്ടി വന്നിനി അപ്പം എല്ലാം കുറച്ച് ബുദ്ധിമുട്ട് ആംബുലൻസ് ശരിയാക്കാനും കുറച്ച് ബുദ്ധിമുട്ടനുഭവി അനുഭവം വന്നിനി അതേപോലെ പിന്നെ എൻ്റെ ഭർത്താവിനും അങ്ങനെ അന്ന് ഇതാ അസുഖത്തിന് എല്ലാ വീട്ടിലും വീടുകൾ തോറും കയറി ഇറങ്ങീനി ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താം പറ്റി അതേപോലെ നമ്മളെ അടുത്ത വീട്ടിലും അങ്ങനെ ജോസേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട് അവർക്കും അങ്ങനെ ആരുമുണ്ടായില്ല എല്ലാവരും ഞായറാഴ്ചയാണ് എല്ലാവരും ഓരോ ആവശ്യത്തിനും ഓരോ സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ലീലേച്ചി ഒന്നെന്നെ സഹായിക്കണേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത വീടുകളിൽ എല്ലാം പോയി ആര വീട്ടിലും ആരും ഇല്ല പിന്ന ഒരു വീട്ടിൽ നിന്നൊരു ആളെ കിട്ടി അവരോട് പറഞ്ഞു ഇങ്ങനെ ജോസേട്ടൻ്റെ ജീവൻ അപകടത്തിലാണ് എങ്ങനെങ്കിലും ഒന്ന് കാസർഗോഡേക്ക് എത്തിക്കണം അങ്ങനെ ക അവർ വന്നിട്ട് ഇന്ത്യാന ഇവിടെ കാസർഗോഡ് കിംസിൽ കൊണ്ട് പോയി കിംസിൽ കൊണ്ട് പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് അപ്പുറം ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടേക്ക് കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് മൻസൂർ ഡോക്ടർ ആണ് അപ്പോൾ മുന്നം അവർ പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിനെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ടി വരത്തി വരത്തില്ലായിരുന്നു അത് അത്ര നല്ലവണ്ണം കഷ്ടപ്പെട്ടിനി ഞാൻ എന്ന് അവർ ഇന്നും അവർ എന്നെ നല്ല പോലെ ഇതാക്കുന്നുണ്ട് പിന്ന നിങ്ങൾ അന്ന് ഇതാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപെട്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവർ നല്ല ഹാപ്പിയിലുണ്ട് നല്ല പോലെ പറയുന്നുണ്ട് പിന്നെ ഇത് അത് ഇങ്ങനെ എല്ലാവരെയും ഒരു ഇതാണ് അപ്പോൾ എല്ലാരോരോ സഹായമല്ലേ അതുകൊണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ദൂരം അതിന് എന്നാ നമുക്കെന്തെങ്കിലും ഒരസുഖം വന്നാൽ കുറേ ദൂരം പോകേണ്ടി വരുന്നു ഇവിടെ നാട്ടിൽ ഒരു സൗകര്യമില്ല ഒക്കിനടുക്കത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി അതും ഇപ്പം ഉണ്ടെങ്കിലുണ്ട് അതേപോലെ കോവിഡ് ആസ്പത്രിയെന്ന് പറഞ്ഞ് തെക്കിലൊരു ഹോസ്പിറ്റൽ തുടങ്ങി അതും അങ്ങനെത്തന്നെ ഉണ്ട് എന്നാലും നമുക്ക് ആവശ്യത്തിന് മംഗലാപുരം അല്ലെങ്കിൽ പരിയാരം ഇങ്ങനെ പോവ പോവേണ്ടി വരുന്നുണ്ട് എന്നാലും സാരമില്ല എങ്ങനെയെങ്കിലും ചെയ്യാം നമ്മടെ നമ്മൾക്ക് അടുത്ത് മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്കും ഇതാണ് ഹാർട്ട് ഹാർട്ടിൻ്റെ അസുഖമാണ് ഇങ്ങനെ മരുന്നിൽ ഇങ്ങനെ ശരിയായിട്ട് പോകുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ദിവസം നമുക്ക് മൂ എൻ്റെ ഭർത്താവിന് മാസത്തിൽ മൂന്നായിരം രൂപ വേണം മരുന്നിന് മരുന്ന് കഴിച്ചിട്ടുതന്നെ വയർ നിറയ്ക്കുന്നതാണ് ചോറ് കറിയും തിന്നിട്ടല്ല അത് മരുന്നിൽ തന്നെ ഇതാകുന്നുണ്ട് എപ്പോഴും അസുഖം തന്നെ അതുകൊണ്ട് ഇപ്പോൾ ദൂരം ദൂരം പോയില്ല കാസർഗോഡ് നിന്നുതന്നെ ഇപ്പം ഇന്ത്യാന ഹോസ്പിറ്റലിൽ ചെയ്തതെങ്കിലും കാസർഗോഡ് മൻസൂർ ഡോക്ടർ ആണ് നോക്കുന്നുള്ളത് അതിൻ്റെ ഇടയിൽ എന്തെല്ലോ അസുഖമുണ്ട് പിന്ന അതുണ്ട് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് പിന്ന സ്ട്രോക്ക് വന്നു എല്ലാം കൂടെ ഒന്നാ ഒന്നിച്ചിട്ട് നല്ലവണ്ണം കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് പിന്ന എനിക്കും അങ്ങനെ ഒരു കൈ വേദന കാൽ വേദന ഇപ്പം നമ്മൾ ആയുർവേദ മരുന്നാണ് ഞാൻ എടുക്കുന്നുള്ളത് എന്നാലും സ ഇതാ എങ്ങനെങ്ങും കഷ്ട്ടിച്ച് പോകുന്നുണ്ട് പിനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇത്രയൊക്കെ നമുക്ക് ദൂരം തന്നെ പോകണം എന്തോരോ അസുഖം വന്നെങ്കിൽ അടുത്തൊന്നും ഇതില്ല അടുത്ത് ദൂരം തന്നെ പോകണം വലിയ വലിയ അസുഖം വന്നെങ്കിൽ ഒന്ന് മംഗലാപുരം പോകണം അല്ലെങ്കിൽ പരിയാരം പിന്നെ അല്ലെങ്കിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ തന്നെ നമുക്ക് കയറണം നമുക്ക് കാസർഗോഡ് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇപ്പം ആയിട്ട് പിന്നെ ജില്ല ആസ്പത്രിയിൽ ചെയ്യുന്നുണ്ട് എന്നാലും പിന്ന വലിയ അസുഖത്തിന് ഇപ്പം നമ്മൾ കുറേ ആളുണ്ടാവണം നമുക്ക് പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഓട്ടമല്ലേ അതുകൊണ്ട് എല്ലാ ദിക്കിലേക്കും ഇങ്ങനെ ഓടിക്കോണ്ട് ഇരിക്കും അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപെടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സംഭവം ഇവിടെ കാസർഗോഡ് ഇങ്ങനത്തെ ഉള്ളൊരു സൗകര്യമില്ല